ഹലോ ആരാണ് ആ ഇവിടെ കഴിക്കാനാണെങ്കിൽ നമുക്ക് പൊറോട്ടയുണ്ട് ദോശയുണ്ട് ചപ്പാത്തിയുണ്ട് ഉഴുന്ന് വടയുണ്ട് ചിക്കൻ പഫ്സുണ്ട് എല്ലാ സാധനങ്ങളുമുണ്ട് നല്ല കടുപ്പത്തിൽ ചായയുണ്ട് ചായ നമുക്ക് മധുരം ഉള്ളതു കൊണ്ട് മധുരം ഇല്ലാത്തതും നിങ്ങൾക്ക് ഷുഗറൊന്നും ഇല്ലല്ലോ കഴിഞ്ഞ വർഷം വന്നപ്പോഴും കുഴപ്പമൊന്നും ഇല്ലാഞ്ഞല്ലോ ആ പാലപ്പവും കടലക്കറിയുണ്ട് കടലക്കറി വേണേ കടലക്കറി തരാൻ അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് കറിയുണ്ട് മുട്ടക്കറിയുണ്ട് ബീഫ് കറിവെച്ചതു കൊണ്ട് ഇതൊക്കെ വേണമെങ്കിൽത്തരാം ഏതാണ് ആവശ്യമെന്നു പറഞ്ഞാൽ പറഞ്ഞോ ഏതാണ് ആ പാലപ്പവും ഗ്രീൻ പീസും എടുക്കട്ടെ ആ ചായ എടുക്കണോ അതോ കടുപ്പത്തിലെടുക്കുന്നോ ഒരു ചായയെടുക്കട്ടെ കടുപ്പത്തിൽ ആ ഓക്കേ ഓക്കേ ഞാൻ എന്നാൽ പാൽ കൂട്ടി നല്ലൊരു ചായയെടുക്കാമേ നമുക്ക് ഈ നല്ല തേയിലയും കടുപ്പം കൂട്ടിയിട്ടേക്കാം നമുക്ക് എപ്പോഴും തരുന്നത് കണക്കു തന്നെയിട്ടേക്കാം കുഴപ്പമൊന്നും ഇല്ലല്ലോ തേയില കടുപ്പം കൂട്ടിയിട്ടേക്കട്ടെ ആ എനിക്ക് സുഖമാണ് പിന്നെ കുറച്ച് പൊറോട്ട മിച്ചം ഇരിപ്പുണ്ട് അത് വല്ല പാഴ്സലായിട്ട് വല്ലതും കൊണ്ടു പോകാൻ വേണോ ആ ഒത്തിരി നാൾ നിങ്ങളല്ലേ ഇങ്ങോട്ടു വരേണ്ടത് നമുക്കിപ്പോൾ ഓൺലൈൻ ബിസിനസ്സ് നടക്കുന്ന കാരണം വലുതായിട്ടൊന്നും പോകുന്നില്ല എല്ലാം തട്ടു കടയല്ലേ അപ്പുറത്ത് തട്ടു കട ഇപ്പുറത്ത് തട്ടു കട അതു നമ്മുടെ ഇതു കൊണ്ടൊന്നും അല്ലന്നേ പിള്ളേർ പോയി കാശുണ്ടാക്കി ഇങ്ങോട്ടയക്കുന്നുണ്ടല്ലേ നമുക്കീ ചായ വിറ്റാലെന്നാ കിട്ടാനാണ് കുറച്ച് പൊറോട്ട ആ അതു പറഞ്ഞിട്ടു കാര്യം ഇല്ല നമ്മൾ മൈദയ്ക്കും എണ്ണക്കൊക്കെ എന്നാ വിലയാണ് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റിയെൺപത് രൂപാ കൊടുത്തു മേടിച്ചാൽ പത്ത് പൊറോട്ടയടിച്ച് കുഴക്കുമ്പോൾ നമ്മുടെ ബംഗാളിയതെടുത്ത് ബാക്കി മേത്ത് തൂത്തു കൊണ്ട് പോകുക പിന്നവനെ പിരിച്ചു വിട്ട് അടുത്തൊരുത്തനെ വിളിച്ചിരിക്കുകയാണ് അവൻ ചായയടിച്ചിട്ടാർക്കും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാൻ തന്നിപ്പടിക്കുകയാണ് വാടക കൊടുക്കാനുള്ള പൈസ കയ്യിൽ നിന്നുണ്ടാക്കണ്ടേ അതു കാരണം ഞാനിപ്പോൾ തന്നെ ചെയ്യുക നമുക്ക് വീട്ടിൽ കൊണ്ടു പോകാനായിട്ട് പെൺ പിള്ളക്ക് വല്ല ആങ്ങളക്കോ പെങ്ങൾക്കോ വല്ല ബോണ്ടായോ വല്ലതും പൊതിയണോ അതു ഞാൻ പറഞ്ഞില്ലേ അതു നമ്മുടെ അപ്പാപ്പന്മാരുണ്ടാക്കിയിരിക്കുന്ന കട കൊണ്ടാണ് ഞാനിതു ചെയ്ത് ഇതു വരെ ഒരു രക്ഷയും വന്നിട്ടില്ല പിന്നെ നമ്മൾ പാരമ്പര്യമായിട്ടു ചെയ്തു കൊണ്ടിരിക്കുന്ന പണിയായതു കാരണം നിർത്തുന്നില്ലയെന്നു ള്ളതേയുള്ളു പാല് വല്ലതും കിട്ടാനുണ്ടോ കവർ പാല് മേടിച്ചാണ് ഇവിടെല്ലാ മനുഷ്യർക്കും ഷുഗറും പ്രഷറുമാണ് ഇപ്പോൾ നമ്മുടെ പശുവിനെ ആരെങ്കിലും വളർത്തുന്നുണ്ടോ ഒരിടത്തും പശുവിനെ വളർത്തുന്നില്ല അത് കൊണ്ടീ കവർ പാല് മേടിച്ചു നമ്മൾ കൈ കാര്യം ചെയ്യാം അതിനകത്ത് പകുതിയും മായമാണ് രണ്ടു ചായയടിച്ച് കഴിയുമ്പോൾ ഒരു കവർ പാലാണ് തീരുക അതിനൊന്നും കൊഴുപ്പില്ലന്നേ നമുക്കിപ്പം ബിസിനസ്സ് മുന്നോട്ടു കൊണ്ടു പോകാനൊട്ടും താൽപ്പര്യം ഇല്ല പിന്നെയിത് ചെയ്തു പോകുന്നത് നിർത്തിക്കഴിഞ്ഞാനെന്നാ ചെയ്യും ഏതു പണിക്കു പോകും എന്നോർത്ത് നമ്മൾ ചെയ്യുക ആട്ടെ പാലപ്പം ഇന്നാ പിടിച്ചോ കേട്ടോ നാലെണ്ണം വെച്ചിട്ടുണ്ടേ നാലെണ്ണവും ആ ചേച്ചി അപ്പുറത്തിരുന്ന് ഉഴുന്നാട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉഴുന്ന് വടക്കുള്ളതാണേ അത് നമ്മൾ ഫ്രഷായിട്ടാണ് നമ്മളിതിനകത്ത് ചോറൊന്നും ചേർക്കത്തില്ല കറക്റ്റ് ഉഴുന്നും പച്ചരിയും വെള്ളവും ഒഴിച്ച് നല്ല തലേ ദിവസം ഇട്ടത് ഇപ്പോൾ നല്ല മായമായിട്ടുണ്ടാകും അതാട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ മിക്സിക്കകത്തൊന്നും ആട്ടത്തില്ല മിക്സിക്കകത്ത് ആട്ടിക്കഴിഞ്ഞാലതിനൊരു മരവിപ്പാണ് നമ്മുടെയാ മയം കിട്ടുന്നില്ല അതിന് പുള്ളിക്കാരത്തിയാണ്ടപ്പുറത്തിരുന്ന് കല്ലേലിരുന്നു ആട്ടുക ആ സ്വരമാണ് കേൾക്കുന്നത് കേൾക്കുന്നുണ്ടോ ആട്ടുന്നത് ആ പാലപ്പത്തിന് നമ്മൾ പന്ത്രണ്ട് രൂപയാണ് മേടിക്കുന്നുള്ളു പതിനഞ്ച് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പക്ഷെ നമുക്ക് പന്ത്രണ്ട് രൂപയേ മേടിക്കുന്നുള്ളു എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ടു കൊണ്ടു പോകണ്ടേ അതു കൊണ്ടാണ് കേട്ടോ ആ പത്ത് രൂപയ്ക്കകത്ത് അതിനകത്ത് ഈസ്റ്റിട്ടതായിരിക്കും നമ്മൾ ഈസ്റ്റിട്ടല്ല പാലപ്പം ഉണ്ടാക്കുന്നത് നമ്മളിച്ചിരി കുത്ത് കുറവാണ് അതിന് നമ്മൾ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് ഈസ്റ്റൊഴിക്കാതെ കള്ളു തൻ തെങ്ങിൻ്റെ കള്ള് തന്നെ ഒഴിച്ചുണ്ടാക്കുന്ന പാലപ്പമാണ് അതാണ് പന്ത്രണ്ട് രൂപാ മേടിക്കുന്നത് നിങ്ങൾക്ക് വയറു വേദനയൊന്നും എടുക്കത്തില്ല നിങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടും ഇതു കഴിച്ചാണ് ഇന്നലത്തെ പത്രം കണ്ടോ കോട്ടയം മെഡിക്കൽ കോളേജിലൊരു ഡോക്ടർ ഇട്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾ തട്ട് കടയിൽ നിന്ന് ആഹാരം കഴിച്ച് കഴിച്ച് ഇവിടെ മഞ്ഞപ്പിത്തമുള്ള രോഗികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പം നമ്മളെക്കാണക്കുള്ള പൂർവികർ തന്നിട്ടുള്ള പണി ചായക്കടയുടെ പരിപാടികളൊക്കെ നമ്മൾ തുടർന്നു കൊണ്ട് പോകുന്നത് നിങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യമുണ്ടാകട്ടെയെന്നോർത്താണ് ഇതിൽ നമ്മളൊരു ശുചീകരണത്തിന് കണ്ടോ ഏന്നും രാവിലെയും ഉച്ചക്കും വൈകീട്ടും ഇവിടെ നമ്മൾ ഡെറ്റോളൊഴിച്ചാണീ തറയും ഡെസ്ക്കുമെല്ലാം തുടക്കുന്നത് ഇവിടെ ബംഗാളീനെയൊന്നും നിർത്തത്തില്ല അവൻ കുളിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പുരക്കകത്ത് കയറ്റത്തില്ല അത്രക്ക് ശുചിത്വമുള്ളതാണ് നമ്മളേലേലല്ലേ ചോറ് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾക്കീ പാലപ്പം തരുന്നത് നല്ല വാട്ടിയ ഇലയിലാണ് അല്ലാ നമ്മൾ പ്ലാസ്റ്റിക്ക് പാത്രമൊന്നും ഉപയോഗിക്കത്തില്ല എല്ലാം നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്നെടുത്ത സാധനം കൊണ്ടു മാത്രമാണ് തിളപ്പിച്ചാറ്റിയ വെള്ളമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നൂറ് ഡിഗ്രി തിളപ്പിച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് വെള്ളം തരുന്നത് ഇതെല്ലാം നമ്മുടെയീ ഗ്യാസ് വിലക്ക് ഞാനെങ്ങനെ മുതലാക്കാനാണ് ഈ പത്ത് രൂപയ്ക്ക് പാലപ്പം തന്നാൽ മൂന്ന് പാലപ്പമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് രൂപ വെച്ച് മേടിച്ചാലും ഓക്കേ താങ്ക് യൂ